പുസ്തകങ്ങൾ പുസ്തകങ്ങളെന്ന് വെച്ചാൽ എനിക്കൊരു ഹരമാണ് പുസ്തകമെന്നു വെച്ചാൽ എനിക്ക് ഭയങ്കര താത്പര്യമാണ് പണ്ട് തൊട്ടേ പുസ്തകം വായനയെന്നു വെച്ചാൽ എൻ്റെ ജീവിതത്തിലൊരു ഭാഗമായിട്ടാണ് അത് നിന്നത് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് പിന്നെ പല വാർത്തകളും ഞാൻ കാണലുണ്ട് അതേപോലെ വർത്തകൾ ആ വായിക്കാറുമുണ്ട് അതെനിക്കൊരു ഹരമാണ് എനിക്ക് ഭയങ്കര താത്പര്യമുളള കാര്യങ്ങളുമാണ് ഭയങ്കര രസമാണ് വായിക്കാനും പിന്നെ പുസ്തകങ്ങളും അതെ പോലെതന്നെ വേറെ കുറേ താരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കലുണ്ട് അത് നർമ്മം ഉള്ള വാക്കുക പുസ്തകമാവട്ടെ അതേപോലെ നല്ല എന്താ വൈകാരികായിട്ടുള്ള പുസ്തകങ്ങളാകട്ടെ പിന്നെ ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാകട്ടെ ഞാൻ വായിക്കും എനിക്ക് താത്പര്യമാണ് കൂടുതലും സ്പിരിച്വൽ ആയിട്ടുള്ള പുസ്തകങ്ങളാണ് താത്പര്യം എനിക്ക് അത് ഭയങ്കരം രസമായിട്ടുണ്ട് പിന്നെ ജീവിതത്തിൽ അതെനിക്ക് തരുന്ന സന്തോഷം വളരെ വലുതുമാണ് പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ പുസ്തകമെന്നു പറഞ്ഞാൽ ഇപ്പോൾ വായിച്ച പുസ്തകങ്ങളിൽ അധികവും എൻ്റെ മനസ്സിൽ തങ്ങി നിന്ന പുസ്തകമെന്ന് വെച്ചാൽ പൗലോ കൊയ്ലോ എഴ് എഴുതിയ ആൽക്കെമിസ്റ്റ് എന്ന ബുക്കാണ് അതിൽ എഴുതിയ ഒരു വാചകം ഇങ്ങനെയാണ് അതായത് നിങ്ങൾ ആത്മാർഥമായി എന്ത് എന്തെങ്കിലും ആ മനസ്സിൽ ആഗ്രഹിച്ചാൽ ഈ ലോകം തന്നെ അതിനു വേണ്ടി പ്രവൃത്തിക്കും എന്നതാണ് ആ പുസ്തകത്തിലുള്ള മെയിൻ പ്രധാനായിട്ടുള്ള ഒരു വാചകം അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ തങ്ങി നിന്നു അതേപോലെ ശരിക്കും അതെൻ്റെ ജീവിതത്തിൽ ന ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൗട്ട് ക്യാമ്പിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനൊരു അദ്ധ്യാപകനാകും എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ധ്യാപകനാകാൻ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള കഴിവ് എനിക്ക് ഉണ്ട് എന്ന് എനിക്ക് ഇതുവരെ തോന്നി ആ സമയത്ത് തോന്നിട്ടുണ്ട് ഇല്ലായിരുന്നു പക്ഷേ ഒരഞ്ച് വർഷം കഴിഞ്ഞ് ഇപ്പോൾ നോക്കുമ്പോൾ ആ സ്ഥാനത്തിൽ ഞാനിപ്പോൾ വരുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ ഞാൻ ആത്മാർഥമായി ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് സംഗീതമെന്ന് വെച്ചാൽ ആ സംഗീതം എൻ്റെ ജീവിതത്തിൽ ഉടനീളം വരുന്നു അത് മുമ്പത്തേക്കാൾ നല്ല വേഗത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നുന്നത് അത് ഈ സ് പുസ്തകം വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതെല്ലാം ആയിരുന്നു പുസ്തകം വായിക്കുന്ന സമയത്ത് ഇതൊരു വാചകം മാത്രമെന്ന് മാത്രമേ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിൽ പറയുന്ന വാചകമെന്ന് വെച്ചാൽ നിങ്ങൾ ആത്മാർഥമായി ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് സാധിക്കാൻ വേണ്ടി ഈ ലോകം തന്നെ പ്രവൃത്തിക്കും എന്നതാണ് എങ്ങനെയാണ് ഒരു ആത്മാർഥമായി നമ്മൾ ആഗ്രഹിച്ചാൽ എങ്ങനെയാണ് ലോകം ലോകതിന് പ്രവൃത്തിക്കുന്നത് അത് ശരിക്കും നടക്കുന്നതാണോ അല്ല അത് വാചകത്തിന് വേണ്ടി പുസ്തകം പ്രസിദ്ധമാകാൻ വേണ്ടിയിട്ടാണോ അത് പറയുന്നതെന്ന് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ശരിക്കും അത് സത്യമാണെന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ആത്മാർഥമായി ആഗ്രഹിച്ചാൽ മാത്രം പോരാ അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നതാണ് അതിൻ്റെ ഒരു കാര്യം ആത്മാർഥമായി ആഗ്രഹിച്ചാൽ മാത്രം ഒരു കാര്യം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അതൊരു അസാദ്ധ്യമായ കാര്യമാണ് അതൊരിക്കലും നടക്കാൻ പറ്റില്ല ആത്മാർഥമായി നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളതിന് വേണ്ടി ശ്രമിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഏത് രീതിയിലാകട്ടെ ആരും ആകട്ടെ അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പല രീതിയിലും പല സമയത്തും നമ്മൾ നേടാൻ വേണ്ടിയിട്ട് അർഹനായിട്ട് നിൽക്കേണ്ടി വരും എന്നതാണ് അതിൻ്റെ ഒരു കാര്യം അതിൻ്റെ ഒരു ഉൾ ഉള്ളടക്കമെന്ന് വെച്ചാൽ അതാണ് അതാണ് എനിക്ക് പറയാനുള്ള പ്രധാന കാര്യം പിന്നെയെന്ന് വെച്ചാൽ എ പി ജെ അബ്ദുൾ കലാം എഴുതിയ വിങ്സ് ഓഫ് ഫയർ അതാണ് എന്നെ കൂടുതലും ഇൻസ്പയർ ചെയ്ത മറ്റൊരു പുസ്തകം പല കാര്യങ്ങൾ അതിൽ പഠിക്കാൻ പറ്റി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എ പി ജെ അബ്ദുൾ കലാം എന്ന മഹാൻ വ്യക്തി പൈലറ്റാകാൻ വേണ്ടിയിട്ട് പോയതാണ് അതിൽ പൈലറ്റാകാൻ വേണ്ടിയിട്ട് പോയ എ പി ജെ അബ്ദുൾ കലാം ഒമ്പതാം റാങ്ക് കൂടിയാണ് അവിടെ നിന്ന് പുറത്ത് വന്നത് ഭയങ്കര വിഷമം ആയിട്ടാണ് എ പി ജെ അബ്ദുൾ കലാം അവിടെ നിന്ന് പോയി രാമേശ്വരത്തിൽ ഒരു സ്വാമിയേ കണ്ടത് അതായത് എട്ടാൾക്കാർക്ക് മാത്രമേ പൈലറ്റാകാൻ വേണ്ടിയിട്ടുള്ള യോഗ്യ അർഹത ഉണ്ടായതുള്ളു ഒൻപതാമത്തെ ആൾക്ക് ആളായി എ പി ജെ അബ്ദുൾകലാം അവിടെ നിന്ന് പോയി അപ്പോൾ ഉണ്ടായ വിഷമം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ നിന്നെ കൊണ്ട് സാധിക്കും എന്നൊരു വാക്ക് എ പി ജെ അബ്ദുൾ കലാമിനോട് ഒരു സ്വാമി പറഞ്ഞു അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം എ പി ജെ അബ്ദുൾകലാം ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് വന്നു പ്രസിഡൻ്റെന്നു വെച്ചാൽ പ്രസിഡൻ്റിനുള്ള പവറെന്നു വെച്ചാൽ മൂന്ന് സൈന്യത്തിനും പരമാധികാരിയാണ് ഈ പ്രസിഡൻറ്റ് അങ്ങനെ പരമാധികാരിയായിട്ട് ഒരു വിമാനം ഓടിച്ചുവെന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല എത്രയോ വർഷങ്ങൾക്ക് സാധിക്കാതെ പോയ ആ ഒരു കാര്യം ഒരു ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് എ പി ജെ അബ്ദുൾ കലാം നേടിയെന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യം അല്ല അതെനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത മറ്റൊരു കാര്യമാണ് അതേപോലെ പല കാര്യങ്ങൾ പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് അതേപോലെ മഹാഭാരതം എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്ത മറ്റൊരു പുസ്തകം ആണ് അതൊരു ഇതിഹാസ കാവ്യം എന്ന് പറഞ്ഞാലും അതിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നും പോലും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ അതിന് ഉൾക്കൊള്ളണം എന്നതാണ് ആ അതിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ രാമായണം ഏക പത്നീ വ്രതസ്ഥനായ രാമൻ എങ്ങിനെയാണ് ഒരു ജീവിതം നടത്തണം എന്ന രീതിയിൽ ഒരു വാചകം അതിൽ പറയുന്നുണ്ട് അതേപോലെ സഹോദര സ്നേഹം അതേപോലെ എങ്ങനെയാണ് ഒരു സൗഹൃദം ഒരു കൂട്ടുകാർ തമ്മിലെങ്ങനെയാണ് ഉണ്ടാകണം എന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ നമ്മൾ വായിച്ചാൽ അതിൽ കാണാൻ പറ്റും എങ്ങനെ ദുര്യോധനനും കർണ്ണനും തമ്മിലുള്ള ആ ഒരു സൗഹൃദം നില നിന്നതെങ്ങനെയാണ് അതേപോലെ അവരുടെ തമ്മിലുള്ള വാക്കുകൾ ആ വാക്കുകളിൽ ലുള്ള ആ ഉള്ളടക്കം എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാം ആ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊള്ളണം എന്നതാണ് ഈ പലപ്പോഴും ഇപ്പോൾ നില നിൽക്കുന്ന ആ ഒരു സൗഹൃദം പാളിപ്പോകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം ആ സൗഹൃദത്തിലുള്ള ചില പിണക്കങ്ങൾ ഇണക്കങ്ങൾ എല്ലാം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്ത് തന്നെ ആയാലും എനിക്ക് ഇൻസ്പെയറിങ്ങ് അതായത് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ട് വന്ന വാക്കുകളിൽ പ്രധാനമായിറ്റ് പറയുന്നത് ആൽക്കെമിസ്റ്റിൽ ആൽക്കെമിസ്റ്റാണ് പൗലോ കൊയ്ലോ ഈ എഴുതിയ ആ ഒരു വാക്ക് നിങ്ങൾ ആത്മാർഥമായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകം തന്നെ നമ്മുടെ കൂടെ നിൽക്കും എന്നതാണ് അത് സത്യമാണ് അതിപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ ആഗ്രഹം എന്നത് ആത്മാർഥമായിട്ട് ഇരിക്കണം എന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം ആഗ്രഹം ആത്മാർഥമായിട്ട് ഇല്ലെങ്കിൽ ചില സമയത്ത് അത് നമ്മളുടെ കയ്യിൽ നിന്ന് പോകും ആ ആ ആഗ്രഹം നില നിൽക്കാതെ പോകും എന്നതാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം